പാലക്കാട് നൂറ്റി നാല്പത് നിയമസഭ മണ്ഡലങ്ങൾ ആണുള്ളത് അതുപോലെത്തന്നെ എൺപത്തി എട്ട് ഗ്രാമങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഗ്രാമപഞ്ചായത്ത് ഉള്ള ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെത്തന്നെ പാലക്കാടില് വളരെ ഏറെ കാഴ്ചവെക്കുന്ന വികസനകളില് വികസനങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെയുള്ള നേതാക്കന്മാർ എല്ലാവരും തന്നെ പാലക്കാടുള്ള ഈ ഇപ്പോഴത്തെ എം എൽ എയായ ഷാഫി പറമ്പിൽ വിക്ടോറിയ കോളേജിലേക്ക് ബസ് നൽകുകയും ആവശ്യക്കാർക്ക് വീട് വെച്ച് കൊടുക്കുകയും വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്ക് എല്ലാം ഭക്ഷണം നൽകുകയും അങ്ങനെയുള്ള പല സേവനങ്ങളും എം എൽ എയായ ഷാഫി പറമ്പിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോഴത്തെ എം പിയായ രമ്യ ഹരിദാസ് വളരെ നല്ല കാഴ്ചവെക്കുന്ന പ്രകടനങ്ങൾ ആണ് കാ കാണാൻ കഴിയുന്നത് അതായത് സാധാരണ ജനങ്ങളുമായി അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ അവരുടെ സമീപത്ത് പോയി ചെന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുകയും ആണ് രമ്യ ഹരിദാസും ചെയ്യുന്നത് മൊത്തത്തിൽ പാലക്കാടിൻ്റെ ഭരണകൂടം നല്ലൊരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്